ഹലോ ഹലോ അ കട്ടപ്പന മൈ ജി അല്ലേ

മിക്സി മിക്സി ബട്ടർഫ്ലൈയുടെ ഉണ്ടോ ആ അതിന് ഒരു ഫോട്ടോ അയക്കാനൊക്കെ ആയിട്ട് പറ്റുമോ ഓക്കെ എത്ര വില വരുന്നതിൻ്റെ ഒക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക ആ ഓക്കെ അത് ആവും ആറ് മാസം സർവീസ് ഓക്കെ ആ നേരിട്ട് വന്ന് വാങ്ങിക്കണൊ അതോ ഓൺലൈൻ എന്നാ ഡെലിവറി ആയിട്ട് ഉണ്ടോ രണ്ട് രീതിയിലും കിട്ടും ആ ഓഫറൊക്ക ഉണ്ടല്ലോ അല്ലേ ഓക്കെ ആ ആ ഓ ഏതൊക്കെ കളറിലുള്ളത് ആയിരിക്കും ഉള്ളത് ആ ഓക്കെ ആ ആ കളർ വൈറ്റ് ഉണ്ടോന്നാണ് ഞാൻ വൈറ്റ് ഉണ്ടോ ഓക്കെ ആ ജാറ് എത്ര എണ്ണം കാണും മിക്സിയുടെ

മൂന്ന് ജാറ് കാണുവായിരിക്കും അല്ലേ

ജ്യൂസിൻ്റെ ജാർ അങ്ങനെ വല്ലതും ഉണ്ടോ ആ ഉണ്ട് ഓക്കെ ഓക്കെ മ് ഓൺലൈൻ ഷോപ്പിംഗ് നോക്കാമെന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ ഉണ്ടല്ലേ ആ എന്നാൽ വന്ന് വാങ്ങാം പ്രശ്നം ഇല്ല

അതും ബട്ടർഫ്ലൈയുടെ തന്നാൽ മതി സെയിം ബ്രാൻഡ് തന്നെ

ഏതൊക്ക കളറിലാണ് ഉള്ളത് എല്ലാ കളറിലും ഉണ്ടോ പർപ്പിൾ ആ ആ ആ എന്നാൽ മിക്സി വങ്ങുമ്പം കൂടെ തന്നെ വന്ന് വാങ്ങാം ഫ്രീ ആയിട്ട് ഓക്കെ താങ്ക്യൂ എ ആ രണ്ട് മാസത്തെയാണ് രണ്ട് ഓക്കെ ഓക്കെ ആ